ഞാനൊരു നാട്ടിൻ പ്രദേശത്താണ് ജീവിക്കുന്നത് ഞാനൊരു ഗ്രാമ പ്രദേശത്താണ് എന്നിരുന്നാൽക്കൂടി ഒരു ബിസിനെസ്സിന് ആവശ്യമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ ഇവിടെ സുലഭമായി കിട്ടും എന്നു പറയുമ്പോൾ ഗ്രാമ പ്രദേശം ആയതുകൊണ്ടുതന്നെ ഒരുപാട് കൃഷികൾ ഇവിടെ കൃഷികൾ ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുട ഇവിടെ പറമ്പുകളിലും കാര്യങ്ങളിലും പറമ്പുകളിലൊക്കെ നമുക്ക് പലതരം കൃഷികള് മഞ്ഞൾ ഇഞ്ചി കൂവ അതുപോലെ ഇപ്പോൾ വാഴ തെങ്ങ് പിന്നെ പച്ചക്കറികളായ ഇപ്പോൾ നമുക്കറിയാം വെണ്ടയ്ക്ക വഴുതന പച്ചമുളക് ചീര ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാട്ടിൻ പുറത്ത് ഒരുപാട് നമുക്ക് കാര്യങ്ങള് പെട്ടെന്ന് കിട്ടുന്ന സാധങ്ങളാണ് അതുപോലെ മരച്ചീനി മരച്ചീനിക്കൃഷി അതുപോലെ ചേമ്പ് ചേന അങ്ങനെ ഒരുപാട് കൃഷി നാട്ടിൻ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ നാട്ടിൻ പ്രദേശത്ത് എൻ്റെ ചുറ്റുപാടും അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽപോലും ഇങ്ങനത്തെ ഈ പറഞ്ഞ എല്ലാം ഇല്ലെങ്കിലും കുറച്ചൊക്ക എൻ്റെ വീട്ടിലും കൃഷി ചെയ്യാറുണ്ട് അതുപോലെ എൻ്റെ തൊട്ട് അപ്പുറത്തെ വീട്ടിലെ തൊട്ടപ്പുറത്തെ വീടുകളിലും ഇതുപോലെ കൃഷി കൃഷികളൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും അധികം പുറത്തോട്ട് പോയിട്ട് സാധങ്ങൾ വാങ്ങേണ്ട ഒരാവശ്യം ഇല്ല ഒരാൾക്ക് ഒരു സാധനം ഇല്ലെങ്കിൽ മറ്റൊരാളുടെ സാധനങ്ങൾ കൈമാറിയും അങ്ങനെ ഇവിടെ അങ്ങനെയും ജീവിക്കുന്നവരാണ് ഞങ്ങളിവിടത്തെ ആൾക്കാര് നഗരവുമായിട്ട് കം കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ ഗ്രാമ പ്രദേശങ്ങളിൽ സുലഭമായി കിട്ടുന്ന സാധങ്ങളൊന്നും നമുക്ക് നഗരങ്ങളിൽ കിട്ടാറില്ല നഗരങ്ങളിൽ ഒരുപാട് വില കൊടുത്ത് വാങ്ങി വാങ്ങിക്കണ സാധങ്ങളാണ് നമുക്കിവിടെ നമ്മളിവിടെ വിളയിക്കുന്നത് പിന്നെ നമുക്ക് അറിയാം നമ്മളെ നമ്മുടെ വീട്ട് നമ്മുടെ വീട്ടു വളപ്പില് നമ്മളുടെ പറമ്പില് വളർത്തുന്ന നമ്മളുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഈയൊരു പ്രകൃതി വിഭവങ്ങളൊക്കെ നമുക്ക് തീർച്ചയായും നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ മായമൊന്നും ചേർക്കാത്ത വിഭവങ്ങളാണ് ഇവയ്ക്ക് നമുക്കൊന്നും ഇവയ്ക്കൊന്നും ഇത്ര വിലയുണ്ടോന്ന് നമുക്കറിയില്ല നഗരങ്ങളിൽ പോയാലേ നമുക്ക് ടൗണുകളിൽ പോയാലാണ് ഇവയുടെക്കെ പ്രാധാന്യം മനസ്സിലാകുന്നത് കാരണം ഒരുപാട് ആൾകാർ ഇങ്ങനെത്തെ അപൂർവമായിട്ടുള്ള സാധങ്ങളൊക്കെ കഴിക്കുകയും അല്ലെങ്കിൽ പലതിനും പല അസുഖങ്ങൾക്കുള്ള മരുന്നായിട്ടും പലരും അതു കഴിക്കാറുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ആ ഒരു ലഭ്യതക്കുറവ് മൂലം ഒരുപാട് വില കൊടുത്താണ് ആൾക്കാര് വാങ്ങുന്നത് അപ്പോൾ ഗ്രാമപ്രദേശം ആയിക്കോട്ടെ ഗ്രാമപ്രദേശത്തിലായിക്കോട്ടെ ഒരു ബിസിനസ് നടത്താനുള്ള പ്രകൃതി വിഭവങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ നമുക്ക് ഇതെല്ലം നമുക്ക് ഇപ്പോൾ ഇവിടെ വിളയിച്ചെടുക്കുന്ന സാധങ്ങളെല്ലാം നമുക്ക് ടൗണിൽ കൊണ്ട് നമുക്ക് വിൽക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ ഭക്ഷണം വീട്ടില് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം അങ്ങനെ പല അവസരങ്ങൾ ഉണ്ട് നാട്ടിൻ പ്രദേശങ്ങളില്